ആരുടെയെങ്കിലും അടുത്തുനിന്നു നൃത്തം പഠിച്ചിടുണ്ടോയെന്നു ചോദിച്ചാല് തീര്ച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ്സ് മുതല് ഒരു കോളേജ് വരെയുള്ള സമയങ്ങളില് പല അദ്ധ്യാപകന്മാരുടേയും അടുത്തുനിന്നും നൃത്തം പഠിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള നൃത്തം പഠിച്ചിട്ടുണ്ട് ആദ്യം തുടങ്ങിയത് ഭരതനാട്യത്തിലാണ് അതില്നിന്ന് തുടങ്ങി പല പല ടീച്ചേഴ്സ് മാറി മാറി പഠിപ്പിച്ചു പത്താം ക്ലാസ്സിലെത്തുന്നതുവരേയും പല പല ടീച്ചേഴ്സായിരുന്നു മാറി പഠിപ്പിച്ചിരുന്നത് പത്താം ക്ലാസ്സിലെത്തിയപ്പോള് ഒരു സാറിന്റെ അടുത്ത് നിന്നു പഠിച്ചു ആ അതിനുശേഷം പതിനൊന്നും പന്ത്രണ്ടും നൃത്തത്തില് നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരുന്നു ആ സമയങ്ങളിൽ സ്വന്തമായുള്ള ഡാന്സ് പഠിപ്പിക്കുകയും ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുകയും സ്വന്തമായി ചെയ്യാന് വേണ്ടി പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെകൂടെ തന്നെ കോളേജിൽ കയറിയപ്പോഴത്തേക്കും അവിടെ പെര്ഫോം ചെയ്യാന് വേണ്ടിയിട്ട് രണ്ട് കൊറിയോഗ്രാഫേഴ്സ് വന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും പഠിച്ചിട്ടുണ്ട് അങ്ങനെ പല ആളുകളുടെ അടുത്ത് നിന്നും നൃത്തം പഠിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ സ്വന്തമായി നൃത്തം സംവിധാനം ചെയ്യേണ്ട സമയങ്ങളും വന്നിട്ടുണ്ട് സ്കൂള് പരിപാടികള്ക്ക് വേണ്ടിയിട്ട് പണ്ടു മുതലേ നൃത്തം പഠിപ്പിക്കാന് വേണ്ടി കുട്ടികള്ക്ക് സംവിധാനം ചെയ്തു കൊടുക്കാനും അതുപോലെ എനിക്ക് സ്വന്തമായി ചെയ്യാനും ആനുവല് ഡേ പോലെയുള്ള പരിപാടികള്ക്ക് വേണ്ടിയിട്ട് ചെയ്യാന് വേണ്ടി ഒരു എട്ടാം ക്ലാസ്സ് മുതലേ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ സ്കൂള് സമയങ്ങളില് മിക്കവാറും ഇങ്ങനെയുള്ള കുഞ്ഞുകുഞ്ഞു പരിപാടികള്ക്ക് കുട്ടികൾ തന്നെയായിരുന്നു സ്വന്തം നൃത്തം സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങള് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് അടുത്ത വളരെ അടുത്ത ബന്ധുകളുടെയും കൂട്ടുകാരുടേയും ഒക്കെ കല്ല്യാണങ്ങളും മറ്റും വരുമ്പോൾ ഇതുപോലെ കുട്ടികളെല്ലാം കൂടി ചെയ്യുന്ന നൃത്തവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പലതരത്തിലായി പല സമയങ്ങളിലായി പല അദ്ധ്യാപകരുടെ അടുത്ത് നിന്ന് നൃത്തം പഠിക്കുകയും പഠിപ്പിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് വര്ഷമായി ഇതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല സമയങ്ങളില് പലര്ക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടും ഉണ്ട്